ആ ആ സാറേ അതേ മറ്റേ മൃഗാശുപത്രിയിലെ ഡോ വെറ്ററിനറി ഡോക്ടർ അല്ലയോ ആ അതെ ആ എനിക്കൊരു പെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു പൂച്ചയാണേ ഒരു ഫീമെയിൽ പൂച്ച ആയിരുന്നു കേട്ടോ എന്നിട്ട് ഒരു ഒന്നര വയസ്സ് പ്രായമേ ഉള്ളൂ ആ ഒന്ന് മറ്റേ പെർഷ്യൻ ക്യാറ്റ് എന്ന് പറയുന്ന ആ ഇനത്തിൽ പെട്ട പൂച്ചയാണ് അതിനേ ഇന്നിപ്പം ഇന്നലെ ഉച്ച തൊട്ട് അത് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല നമ്മൾ ആ അവന് മറ്റേ മേടിച്ച് കൊടുക്കുന്ന ഫുഡ് ആണ് കൊടുക്കുന്നത് മീയോയുടെ ഫുഡ് ആണ് നമ്മൾ അതിന് കൊടുക്കുന്നതേ അല്ലാതെ നമ്മുടെ ഓരു ഭക്ഷണവും അതിന് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല അത് അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല കുഞ്ഞിലേ തൊട്ടേ നമ്മൾ അങ്ങനെ തന്നെയാണ് വളർത്തിക്കൊണ്ട് വരുന്നതേ അന്നേരം നമ്മുടെ പുരയ്ക്കകത്തൊരു കൂടൊക്കെ വെച്ചിട്ട് അതിനകത്തിട്ട് തന്നെയാണ് അതിനെ വളർത്തുന്നത് നമ്മൾ പുറത്തോട്ടൊന്നും വിടുന്നതൊന്നുമല്ല പുരയ്ക്കകത്ത് മാത്രം ഇട്ട് നമ്മൾ അങ്ങ് കൂട്ടിനകത്ത് വലിയൊരു കൂടൊക്കെ വെച്ച് നല്ല ഉഷാറായിട്ട് നടക്കുന്ന രീതിയിലൊക്കെ ആണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ഇന്നലെ ഫുഡ് ഒന്നും കഴിക്കുന്നില്ല അതിന്റെ ഫുഡ് കൊടുത്തെങ്കിലും കഴിക്കുന്നില്ല വന്ന് മണപ്പിച്ചിട്ട് അങ്ങ് പോയി ഇരിക്കുവാണ് അപ്പം ഇന്നലെ ചിലപ്പം ഇല്ല വേറെ ഒരു ഫുഡ്ഡും നമ്മൾ കൊടുത്തിട്ടില്ല സ്പെഷ്യൽ ആയിട്ടൊന്നും നമ്മൾ മേടിച്ച് കൊടുത്തിട്ടില്ല അതിന് ഇത് മാത്രമേ ഉളളൂ അപ്പം ഇന്ന് ഉച്ചയായി ഇന്നലെ ഉച്ച തൊട്ടിങ്ങനെ കഴിക്കാതിരുന്നിട്ട് ഇന്ന് രാവിലെ ആയപ്പോഴത്തേന് ഛർദ്ദിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് അങ്ങ് ഛർദ്ദിക്കുന്നുണ്ട് ഒരു ഫുഡ്ഡും കഴിക്കുന്നില്ല അങ്ങനെ അങ്ങ് വിഷമി ഭയങ്കര ഒരിതായിട്ട് ഇരിക്കുന്നു പൂച്ചയ്ക്ക് അതിന് കൊണ്ടുവരണോ അതോ എന്ത് വേണം

അല്ല നമുക്കിപ്പം ഇതുവരെ അതിനെ നമ്മൾ ഇത് ചെയ്തിട്ടില്ല ഒരു അത് ഇടയ്ക്ക് വെച്ച് അതിനെ നമ്മൾ മേറ്റ് ചെയ്യിപ്പിച്ച് അത് പ്രസവിച്ചിരുന്നു രണ്ട് കുഞ്ഞുങ്ങളെ ഒക്കെ പ്രസവിച്ചിരുന്നു അപ്പം അതിന് ശേ അതിന് ശേഷം നമ്മൾ അതിന് വിര ഇളക്കിയിട്ടില്ല ഇനി വിര എളക്കാത്തത് കൊണ്ടാണോ അ നോക്കാം ആ ശരി രാവിലെ ഒമ്പത് മണിക്ക് കൊണ്ടുവരട്ടേ സാറേ പതിനൊന്ന് മണി ആ ശരി പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കും കൊണ്ടുവരാം